ഈ അടുത്ത വളർച്ചയ്ക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന നോക്കണ വളർച്ച നോക്കണെന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം അത്യാവശ്യല്ലാ നല്ല രീതിക്ക് നമ്മടെ സമ്പത്ത് വ്യവസ്ഥ മാ മുന്നോട്ട് പോയിട്ടുണ്ട് അതില് നമ്മുടെ വികസന എന്താ പറയുക അതില് നമുക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന വ്യവസായം അതില് പല വ്യവസായങ്ങളുണ്ട് ഇപ്പോ നമ്മടെ കാർഷിക മേഖലയായിരിക്കും നല്ല മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുള്ള പല മെട് എന്താ പറയുക ഈ ഘനനം അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമ്മളെ വേറെ ഒരു വികസനത്തിൻ്റെ മാർഗം നമ്മുക്ക് സമ്പത്ത് വ്യവസ്ഥയില് കൂട്ടാൻ പറ്റിയത് നമ്മടെ സ്പെയ്സിൻ്റെ അതായത് ഇസ്രോ ഇന്ത്യൻ സ്പെയ്സ് റിസർച്ച് സെൻ്റർ അവരുടെ രീതിയിലുള്ള കുറെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് കാര്യങ്ങളും വിവിധ രാജ്യങ്ങള് നമ്മടെന്ന് പല സാധനങ്ങളും ഉണ്ടാക്കി മേടിച്ചിട്ട് പോകാനും നിക്ഷേപിക്കാനും നമ്മുക്ക് കിട്ടണ പൈസ അങ്ങനെ കുറെ പൈസ നമ്മുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മടെ മിസ് എന്താണ് പ്രതിരോധ രംഗത്ത് അത്യാവശ്യം കാര്യങ്ങളുണ്ട് പുതിയ മിസൈലുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് നമക്ക് കുറെ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആഹ് എന്താ പറയുക നമ്മടെ റെയിൽവേ ഗതാഗതം അതിൽ നിന്നും നമക്ക് കുറെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് നമ്മടെ ഗതാഗത വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ സമ്പാദ്യം പുതിയ ടെക്നോളജികളും സ്പീഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അയിൻ്റെ പൈസ ഫെയറ് അതിൻ്റെ ഇന്ത്യൻ ഫെയറിന്ന് കിട്ടുന്ന വരുമാനം അങ്ങനെ നമുക്ക് കുറെ ഉണ്ട് പിന്നെ നമ്മടെ ഇരുമ്പുരുക്കു വ്യവസായം അതുപോലെ എന്താ പറയുക നമ്മളിപ്പോൾ കൂടുതലായിട്ട് കയറ്റുമതിയിലാണ് എല്ലാ സാധനങ്ങളും കയറ്റി വിടാൻ അതായത് മാക്സിമം നമുക്ക് പണ്ട് ഇറക്കിയിരുന്ന സാധങ്ങളൊക്കെ നമുക്കിപ്പോൾ വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടാൻ പറ്റുന്നു കൂടുതലായിട്ട് കയറ്റി വിടാൻ ഭക്ഷ്യത്തിൻ്റെ മേഖലയായാലും ഏത് മേഖല നോക്കുകയാണെങ്കിലും നമുക്ക് കുറച്ച് അധികം ഇപ്പോൾ എറക്കുമതി കമ്മിയായതും മറ്റേ കയറ്റുമതി കൂടുതലായതും നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടിണ്ട് പിന്നെ നമ്മക്ക് ഡിജിറ്റലായിട്ടുള്ള മാർക്കറ്റിംഗ് ഡിജിറ്റലിസ്റ്റ് മാർക്കറ്റിംഗ് കുറച്ചും കൂടെ നമുക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ പെയ്മെൻറ്റ് ഡിജിറ്റൽ ബാങ്കിങ് അങ്ങനത്തെ ഇത് കുറച്ചും കൂടെ സഹായകരമാക്കി പണ്ടെന്ന് പറയുമ്പോ കാശ് അടക്കാനായിട്ട് അല്ലെങ്കിൽ കാശ് കിട്ടാനായിട്ട് ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും നമക്ക് ഉള്ളില് ആണെങ്കിലും വലിയൊരു എമൗണ്ടൊക്കെ കിട്ടെന്ന് പറഞ്ഞാ ബാങ്ക് വഴി ഇട്ട് പിന്നെ നമ്മളവിടെ പോയി എടുത്ത് അത് രണ്ട് മൂന്ന് ദിവസം വെയ്റ്റ് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കേരുന്ന് ഇപ്പോൾ അങ്ങനൊന്നുല്ല എപ്പോൾ സ്പോട്ടില് പൈസേണ് നമുക്ക് അവിടെന്നിപ്പോൾ പണി കഴിഞ്ഞാ സ്പോട്ടില് പൈസ ഡിജിറ്റൽ പെയ്മെൻറ്റ്ന്ന് പറഞ്ഞാ അങ്ങനൊരു ഇതുണ്ട് സ്പോട്ടില് എവിടെയാണോ പണി അവിടെ അപ്പോൾ ആ പണി കഴിഞ്ഞ വഴിക്ക് നമ്മക്ക് പെയമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ വർക്കെയ്യാനും നമുക്ക് കൂടുതലായിട്ട് എളുപ്പവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താച്ചീ നമ്മടെ ഘടനയെ നന്നായിട്ട് ഹെല്പ്ഫുളളാണ് ഇപ്പോൾ നമ്മടെ സമ്പത്ത് ഘടനേൻ്റെ ഇതൊക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അല്ലെങ്കി ഡിജിറ്റലൈസേഷൻ വന്നതോട്കൂടി നമ്മളാ കള്ളപ്പണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ രീതിയില് നമുക്ക് കുറയ്ക്കാൻ പറ്റി പിന്നെ ഈ ബ്ലാക്ക് മണി അങ്ങനത്തെ കാര്യങ്ങള് അപ്പ ടാക്സ് കൂടുതലായിട്ടും ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആൾക്കാര് അടക്കാൻ തൊടങ്ങിയപ്പോ നമ്മടെ രാജ്യത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് ഘടന ആ രീതിയില് നമുക്ക് വളരെ അതായത് മുന്നോട്ട് വരാൻ പറ്റി അപ്പോൾ ഇതെല്ലാം നമ് ഇതിലല്ല വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുക്ക് അത് മുഴുവൻ എടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും അപ്പോൾ ഇത്രയധികം കാര്യങ്ങളൊക്കെ ഇതിലന്നെ ഇപ്പോൾ ഏകദേശം എല്ലാം കവറെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു